എൻ്റെ ഗ്രാമത്തിൽ മുട്ടുവേദന ഒത്തിരി പേർക്ക് മുട്ട് വേദനയുണ്ട് എല്ലാവരെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് മുട്ടുവേദന പല പലപ്പോഴും ആദ്യം നാട്ടുവൈദ്യമൊക്കെയാണ് എല്ലാവരും പരീക്ഷിക്കുന്നത് നാട്ടു വൈദ്യത്തിൽ സ്വന്തമായ പൊടിക്കൈകളൊക്കെയുണ്ട് അതായതു എരിക്കിൻ്റെ എല ചൂടുപിടിപ്പിച്ചു മുട്ടിനു പിടിക്കുക അല്ലെങ്കിൽ മുട്ടയും ചെന്നിനായകവും അരച്ച് പുരട്ടുക അങ്ങിനെയുള്ള ചെറിയ ചെറിയ വൈദ്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ പൂവരശിൻ്റെ ഇല ഇട്ടു വെള്ളം വെന്തു മുട്ടിനു പിടിക്കുക അങ്ങിനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ആയുർവേദ രീതികളാണ് കൂടുതൽ പേര് അവലംബിക്കുന്നത് ആയുർവേദ കഷായങ്ങൾ വച്ച് കുടിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ വേദന സംഹാരികൾ ഉപയോഗിക്കുന്നവരും കുറവല്ല വേദനസംഹാരികൾ പക്ഷെ ശാശ്വതമായ ഒരു പ്രശ്ന പരിഹാരമാർഗമാകുന്നില്ല മുട്ടുവേദനയ്ക്കു പിന്നെ ഒത്തിരി എന്താണ് മുട്ടിന് ഒത്തിരി സ്ട്രൈൻ കൊടുക്കാതെയൊക്കെ നോക്കിയാണ് അധികം ആൾക്കാരും ചെയ്യുന്നത് കയറ്റം കയറുകയോ ഒരു വീടിൻ്റെ രണ്ടാം നിലയിലോ ഒക്കെ കയറാതെയൊക്കെ നോക്കുകയാണ് കുറേ പേർ ചെയ്യുന്നത് നാട്ടുവൈദ്യന്മാർ ഇവിടെ വളരെ കുറവാണ് എങ്കിലും സ്വന്തമായി പൊടിക്കൈകൾ ഒക്കെയാണ് കൂടുതലും ചെയ്യുന്നത് നാട്ടുവൈദ്യന്മാർ വളരെ ഫലപ്രദമായി ചികിത്സ നല്കുന്നവരുണ്ട് പക്ഷെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ ഇത്തിരി അങ്ങോട്ട് യാത്ര ചെയ്യണം അവർ കാണുമ്പോൾ തന്നെ അതിനുള്ള മരുന്ന് ഒക്കെ നൽകാറുണ്ട് പിന്നെ ആ വേദന സംഹാരികൾ ഒക്കെയാണ് പിന്നെ മുരിങ്ങയുടെ ഇല അരച്ച് മുട്ടിന് ഇടാറുണ്ട് ഇതൊക്കെയാണ് ഇവിടെ ചെയ്യാറുള്ളത് പിന്നെ ആ ചൂട് വയക്കാറുണ്ട് മുട്ടിനു ചൂടു വയ്ക്കും പിന്നെ പഴമയിൽ പഴമക്കാർക്കാണ് മുട്ടുവേദനയുടെ കാര്യങ്ങൾ മുട്ടുവേദനക്കു എന്തു ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാവുന്നത് ഇന്ന് പക്ഷെ പലരും ഡോക്ടറെ കണ്ടു മരുന്ന് വാങ്ങിക്കുകയാണ് ഒരു കൂടുതൽ പേരും ഗുളിക കഴിച്ചു പെയിൻ മാറ്റാനുള്ള ഗുളികൾ കഴിച്ച് ജീവിക്കുന്നവരാണ് നമ്മുടെ പാരമ്പര്യ വൈദ്യന്മാർ വളരെ കുറവായതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് നാട്ടു വൈദ്യന്മാരും അങ്ങിനെയുള്ളവരും പിന്നെ തിരുമ്മൽ ആ ഇതിനു വേറൊരു ആൾക്കാർ നടത്താറുണ്ട് എനിക്ക് ഇതൊക്കയാണ് ഇതിനെകുറിച്ച് പറയാനുള്ളത് പിന്നെ നാട്ടുവൈദ്യം നാട്ടുവൈദ്യന്മാർ ഇവിടെ വളരെ കുറവാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം